ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ എൻറെ അറിവിൽ എൻറെ ആരോഗ്യം അല്ലെങ്കിൽ മറ്റൊരാ ഒരാളുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല അത് പറയുന്നതായിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നോ പറയുന്നതിനെക്കുറിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാനൊരു മതവിശ്വാസി അല്ലാത്തത് കാരണം എനിക്കതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല എൻറെ ഒരു എൻറെ ഒരു സ്വഭാഗത്തുനിന്ന് പറയാനാണെങ്കിൽ അങ്ങനെയൊരു സംഭവം ഉണ്ടെങ്കിൽ നല്ലത് ബാക്കി ഉള്ള ആൾക്കാർക്കും അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം പോലെ ഉണ്ടാകും അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഞാൻ പഠിച്ചാല്ലേ എൻ്റെ മതത്തിലാകെ ഉള്ളത് ആയോധന കല മാത്രമാണ് എന്താണ് കളരി പോലുള്ള ആയോധനകല ശീലിപ്പിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് ഞാൻ എൻ്റെ മതത്തിൽ പിന്നെ അത് മാത്രമല്ല വടി കൊണ്ട് ഉള്ള ഒരു ആയോധന കല ഉണ്ട് അത് ഉണ്ട് അല്ലാതെ മറ്റൊരു ആയോധനകലയോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ഒന്നും എൻ്റെ മതത്തിൽ പഠിപ്പിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല അത് മാത്രമല്ല എനിക്കൊരു ശാരീരികമോ മാനസികമോ ആയിട്ട് മതത്തിൽ പറയുന്നത് മതഗ്രന്ഥങ്ങളിലോ അല്ലാതെ മതപഠനങ്ങളിലോ ശാരീരികമോ മാനസികമോ ആയിട്ട് എങ്ങനെയാണ് ഒരാളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതിന് ഒരാളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് വലിയ ഗ്രാഹ്യം ഒന്നുമില്ല